ഇപ്പോൾ ഞാൻ പലതരത്തിലുള്ള ചെടികളും വള്ളി ചെടികളും വളർത്താറുണ്ട് കാരണം എന്താന്ന് വച്ചുകഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും നമുക്കിപ്പോൾ പച്ചക്കറി അങ്ങനത്തെ ഇനങ്ങളിലാണ് കൂടുതലായിട്ടും വളർത്താറുള്ളതെന്ന് വേണമെങ്കിൽ പറയാം കാരണം പച്ചക്കറി ഇനത്തിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും നല്ലത് നമുക്ക് അതാണ് നല്ലത് പിന്നെ വള്ളി ചെടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പയറ് കൃഷി അങ്ങനത്തെ കൃഷികളാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് അപ്പോൾ അത് വളർത്തുന്നതിന് അനുസരിച്ച് നമുക്കുള്ള അതിപ്പോൾ ഗുണം എന്താന്ന് വച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓക്സിജൻ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഓരോ ചെടി വളർത്തുന്നെനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഓക്സിജനും കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതിനനുസരിച്ചുള്ള കായ് ഫലങ്ങളും അതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും അപ്പം പയർ വള്ളിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പയറ് നമുക്ക് പയറ് തോരൻ വയ്ക്കാനും കറി വയ്കാനും എല്ലാം കാര്യങ്ങൾക്കും പയറ് ചെടി നമ്മള് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ പല രീതിയില് പച്ചക്കറികള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തക്കാളി വെണ്ടയ്ക്ക അങ്ങനത്തെ പലരീതിയിലുള്ള പച്ചക്കറികള് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെടികള് അതായത് ഇപ്പം പൂക്കളെക്കാട്ടും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലാത്ത നമ്മുടെ പച്ചക്കറി ഇനങ്ങളിൽ നിന്നാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യാറുള്ളത്